ഇപ്പോൾ ഞങ്ങളുടെ പ്രദേശത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും മാർക്സിസ്റ്റ് പാർട്ടി ആണ് ഭരിക്കുന്നത് ബി ജെ പിക്കാർ ചെറുതായിട്ട് ഭരണം നിലനിർത്തി വന്നെങ്കിലും അവർ പെട്ടെന്ന് തോൽക്കുകയാണ് ഉണ്ടായത് പിന്നെ ഇപ്പം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തടക്കം എന്താണ് മാർക്സിസ്റ്റ് പാർട്ടി ആണ് അത് സി പി എം ആണ് ഭരിക്കുന്നത് അവർക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചില സ്ഥലങ്ങളിൽ കാഴ്ച വയ്ക്കാൻ കഴിഞ്ഞെങ്കിലും ഇപ്പോൾ ഗതാഗത വകുപ്പ് ആ വകുപ്പുകളിലൊന്നും നല്ല രീതിയിലുള്ള ഇത് കാഴ്ച വയ്ക്കാൻ സാധിച്ചിട്ടില്ല കാരണം എന്താണ് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഈ അപകടം കുറയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമറ കാര്യങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പം അതിപ്പോൾ ജനങ്ങൾക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം പണ്ടത്തെ ഒരു അവസ്ഥയായിട്ടാണ് തോന്നിയിരിക്കുന്നത് കാരണം എന്താണ് വെച്ചുകഴിഞ്ഞാൽ പണ്ട് ബ്രിട്ടീഷുകാർ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അവരുടെയൊരു അടിമത്വം അതായത് നമുക്ക് ഒന്ന് റോട്ടിൽ ഇറങ്ങാൻ പോലുമുള്ളൊരു അവസ്ഥയായിട്ട് തോന്നുന്നില്ല അടിമത്വത്തിൻ്റെ ഒരു ഇതായിട്ടാണ് തോന്നുന്നത് കാരണം എന്താണ് വെച്ച് കഴിഞ്ഞാൽ എ ഐ ക്യാമറ അങ്ങനത്തെ ഓരോ ക്യാമറകളും പല തരം ക്യാമറകളും വെച്ചിട്ട് അപ്പം ആ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അങ്ങനെയാണ് ഈ ക്യാമറ വയ്ക്കുന്ന സമയത്ത് എന്നാൽ പിന്നെ ബാക്കിയുള്ള ജോലിക്കാരെയൊക്കെ പിരിച്ചുവിടാം അങ്ങനെയുള്ളൊരു രീതിയാണ് ഇവർ സമീപിക്കുന്നത് കാരണമെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരുടെയും ആവശ്യമില്ല ഇവർക്കാർക്കും ശമ്പളം കൊടുക്കണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അപ്പോൾ അതൊരു നല്ല നടപടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല